ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോവുമ്പോഴൊക്കെ ബോട്ട് ഒന്ന് ജസ്റ്റ് പൂജിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഒരു ചെറിയ ഒരു പൂജ പോലെ നടത്തുന്നു പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുക നമ്മുടെ എല്ലാ സാധനങ്ങളും മീൻസ് ഡ്രസ്സ് നമ്മൾ ഒരു ഇതിന് പോവുമ്പോൾ എത്ര നാളത്തേക്കാണെന്ന് പറയാൻ പറ്റില്ല പോവുന്നത് ചിലപ്പം അഞ്ച് ആറ് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചെത്തുക അപ്പം അതിൻ്റേതായ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കരുതണം ഫുഡ് ഡ്രസ്സ് വെള്ളം നമുക്ക് കടലിൽ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവിടുത്തെ കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം ഉപ്പുള്ളതാണ് അപ്പം അതിൻ്റേതായ വെള്ളം എല്ലാ സാധനം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക പിന്നെ പോവുന്ന വഴിക്ക് എല്ലാം വാങ്ങാനൊന്നും കിട്ടത്തില്ല പിന്നെ അടുത്തുള്ള കൂട്ടുകാർ ചിലപ്പോൾ നമുക്ക് തന്നു സഹായിക്കും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അല്ലാതെ വേറെ നമുക്ക് ഒന്നും കിട്ടത്തില്ലല്ലോ പിന്നെ നമുക്ക് വല ചൂണ്ട അങ്ങനത്തെ മെയിനായിട്ട് വേണ്ട കുറേ സാധങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ചു വച്ചിട്ടുണ്ടാവും